എൻ്റെ ജീവിതത്തിലേറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു പരീക്ഷണമായിരുന്നു മുട്ട കൊണ്ടൊരു ഭക്ഷണമുണ്ടാക്കിയത് അതായത് ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരും വീട്ടില് കുറച്ച് പിള്ളേര് സെറ്റും ഞങ്ങളെല്ലാവാരുമായിട്ട് നിന്നപ്പോള് ഞങ്ങള്ക്കാഗ്രഹത്തിന് ഒരു പരീക്ഷണം പോലെ എപ്പോഴും ഫുഡ് ചോറ് കാര്യങ്ങളുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് ഞാൻ പാചകം ചെയ്യുക എന്നുള്ളതെനിക്ക് ഭയങ്കര വലിയ ക്രേസുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ ഞാനീ മുട്ട വെച്ച് ഒരു ഒരു എഗ്ഗ് റോള് പോലൊരു ചിക്കൻ നാഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു എഗ്ഗ് നാഗേറ്റ്സ് കണക്കൊരു സാധനമുണ്ടാക്കാനാണ് ട്രൈ ചെയ്തത് പക്ഷേ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസെല്ലാം കറക്റ്റായിട്ട് ചെയ്തു അതിനെ നല്ല ബോൾസായിട്ട് ആക്കിയെടുത്തു എന്നിട്ട് ഞാൻ അതിൻ്റെ എല്ലാ പാക്കേജും പാക്കിങ്ങ്സും എല്ലാം കറക്റ്റായിട്ട് ചെയ്തു അതിൻ്റെ ഫില്ലിങ്ങ്സും എല്ലാം കറക്റ്റായിട്ട് ചെയ്തു ഞാൻ എന്നെ സഹായിക്കാൻ എൻ്റെ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കുട്ടീസൊക്കെയുണ്ടായിരുന്നു പക്ഷേ അവര് എല്ലാവരും തൊട്ടടുത്ത് നില്പ്പുണ്ടായിരുന്നു കണ്ട് കൊണ്ട് ഞാൻ അതെല്ലാവരെയും കാണിച്ചുകൊടുത്ത് കൊണ്ടുതന്നെ ചെയ്തു പിന്നെ അതിന് ഫില്ലിങ്ങൊക്കെ ഫില്ലിങ്ങൊക്കെ ചെയ്ത് നല്ല ബോൾസാക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയെടുക്കുകയായിരുന്നു അതുവരെ എല്ലാം സക്സസായിട്ട് ആദ്യത്തെ കുറേ സാധനങ്ങള് സക്സസ്സായി തന്നെ പോയി ലാസ്റ്റ് ഫൈനലായപ്പോഴത്തേക്കതില് ഭയങ്കര ഒരുപാട് നേരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെയൊരു മടുപ്പ് തോന്നിയ സമയത്തായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ബോൾസ് പോലെയാക്കാതെ വാരി വാരി ഇടാൻ തുടങ്ങി അപ്പോള് ഞാൻ ചിലപ്പോള് സാധാരണ എപ്പോഴും എഗ്ഗ് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്ത് നല്ല നല്ല പോലാക്കി സ്പോഞ്ച് പോലെയാക്കിയിട്ടായിരുന്നു ഇടുന്നത് ഒരിക്കലും കഷ്ണം പോലൊന്നും കിടക്കാറില്ലായിരുന്നു പക്ഷെ ഇതൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു കാര്യം ഈ കഷ്ണം പോലായിരുന്നു കുറച്ചുടച്ചിട്ടതേ ഉള്ളായിരുന്നു അന്നേരം ഇതിങ്ങനെ ലാസ്റ്റ് മടുപ്പ് തോന്നിയ സമയത്ത് കോരി കോരി അങ്ങ് ചട്ടിയിലേക്ക് എണ്ണയിലേക്കിടുകയായിരുന്നു അങ്ങനെ ഇട്ട സമയത്ത് അബദ്ധവശാലൊരു മുട്ടയുടെ പീസ് എണ്ണയില് വന്നു വീണു ഭയങ്കരമായിട്ടൊരു സ്ഫോടനം പോലെയായിരുന്നു അതൊരു പൊട്ടിത്തെറിയായിരുന്നു ഞങ്ങളാ കിച്ചണിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ ഇറങ്ങിയോടുകയായിരുന്നു ആ സമയത്ത് എങ്കിൽ പക്ഷേ അതിലൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായതാണ് നമ്മള് ഒന്നാമത്തെ കാര്യം തന്നെ പാചകം ചെയ്യിക്കലും എണ്ണയില് ഡയറക്റ്റായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ കഷ്ണങ്ങളോ മുട്ടയോ ഒന്നും എടുത്ത് ഇടരുത് അത് ഭയങ്കരമായിട്ട് ഒരു പൊട്ടിത്തെറിയിലേക്കാണ് കലാശിക്കുന്നതെന്ന് അതിലൂടെ മനസ്സിലായി അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോളെപ്പഴും ഇങ്ങനുള്ള ഓരോ ടിപ്സ് ആന്ഡ് കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നും ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത് നമുക്കൊരു ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരും കാര്യം അതന്ന് അങ്ങനൊരു പൊട്ടിത്തെറിയുണ്ടായപ്പോൾ നമ്മുടെ കൂടെ നിന്നവർക്കോ അല്ലെങ്കില് നമുക്കെല്ലാവരും കിച്ചണിൽ നിന്ന് കുറച്ചകന്ന് മാറി പെട്ടെന്ന് പോകാൻ പറ്റിയെന്നു തന്നെ ആർക്കും പെട്ടെന്നുള്ള അപകടങ്ങളോ ഒന്നുമുണ്ടായില്ലായിരുന്നു പക്ഷേ നമ്മളത് അതന്നങ്ങനെ ചെറിയ സ്ഫോടനം പോലെ നടന്നതു കൊണ്ടുതന്നെ എനിക്ക് ഒരു പിന്നങ്ങോട്ടെല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ക്ലിയറാവുകയായിരുന്നു അതുകൊണ്ടെനിക്കിപ്പോള് ധൈര്യ പൂർവ്വം ഓരോന്ന് ചെയ്യാനുള്ളൊരു അന്നത്തെ ഒരു പേടി അതോടു കൂടി എനിക്കങ്ങ് മാറിക്കിട്ടുകയായിരുന്നു